ചേട്ടാ നമ്മുടെ ഈ നെടുമ്പാശ്ശേരി ഏര്പ്പോട്ടിലെ വഴിക്ക് എത്താനിനി ഇപ്പോൾ എത്ര നേരം എടുക്കുമായിരിക്കും ഓ അത്രേം നേരം എടുക്കുമായിരിക്കുവല്ലേ ഓക്കേ ഓക്കെ ഇവിടെയിപ്പോൾ റോഡ് ഇത് കാണ്മാ നമ്മൾ റോഡിന്റെ പണി നടക്കുന്നോണ്ടാണോ നമ്മളിപ്പോൾ തിരിഞ്ഞുപോയത് ഓക്കെ ഇപ്പോൾ ഈ റൂട്ടപ്പോൾ അത്യാവശ്യം ലോങ്ങായിരിക്കത്തില്ലേ അപ്പോൾ ഈ ലോങ് റൂട്ട് പോയിക്കഴിയുമ്പം ഇനി ഇപ്പോൾ എത്ര നേരം എടുക്കുമായിരിക്കും എനിക്ക് ഇന്ന സമയത്താണവിടെ എന്താണ് ഫ്ലൈറ്റ് അപ്പം അതിനുള്ളിൽ നമുക്കെത്താൻ പറ്റുമോ അതായത് എനിക്കൊരു ഒരു കൂടിപ്പോയാൽ ഇനി ഒരു മണിക്കൂടെ എനിക്ക് സമയം കാണത്തൊള്ളൂ അതിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റുമോ എത്താൻ പറ്റൂല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഒന്ന് പെട്ടന്ന് ഒന്ന് വിടാവോ കാരണം നമുക്ക് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ വലിയ പാടാണ് അതോണ്ടാണ് ആ അപ്പം ചേട്ടാ ഒന്ന് പെട്ടന്ന് ഏതേലും ഷോട്ട് കട്ടക്കെ അറിയാമെങ്കിൽ ആ വഴിക്കൊന്ന് പോ കേട്ടോ ഓക്കെ ഏട്ടാ